ഇപ്പം പണ്ട് ആൾക്കാരെല്ലാം പേപ്പറും പെൻസിലും പിന്നെ പേനയും ഉപയോഗിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ലാപ്ടോപ്പ് പിന്നെ ടൈപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടറ് ഒക്കെ ഉളള ഓഹ് ആയി വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എഴുതാനാണ് കാരണം എഴുതുന്നതാണ് സുഖം കാരണം എഴുത്ത് എന്നു പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളാദ്യം തന്നെ ഒരു കുട്ടി ഒരു ആദ്യം അക്ഷരം പഠിക്കാൻ പോവുമ്പം തന്നെ നമുക്കൊരു പെൻസിൽ തന്നിട്ട് ആദ്യം ആ എന്ന് എഴുതാൻ ആണ് പറയുക കമ്പ്യൂട്ടറിൽ നമുക്ക് ആ എന്ന് എഴുതുന്നതിന് ഒരു കുട്ടിയെക്കൊണ്ടിരുത്തി അക്ഷരമാല എഴുതിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ പഠനവും ആ പണ്ടത്തെ പഠനവും അതിനെകാട്ടിയും ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്ക് പണ്ടത്തെ പഠനം തന്നെയാണ് ഇപ്പോഴത്തെ പഠനം കുറേ കമ്പ്യൂട്ടറിലാണ് കമ്പ്യൂട്ടറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കാലം യുഗം ആരംഭിച്ചതല്ലെയുള്ളു പക്ഷെ പണ്ടു കാലങ്ങളിൽ നമ്മൾ ജീവിച്ച കാലങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ അക്ഷരങ്ങൾ എഴുതിയതും അക്ഷരമാല എഴുതിയതും ഒന്നല്ലെങ്കിൽ സ്ലേറ്റുകളിൽ അല്ലെങ്കിൽ ബുക്കിൽ അങ്ങനെയാണ് നമ്മൾ എഴുതിക്കൊണ്ട് വന്നത്